പറഞ്ഞേ ആ അതെ അതെ അതെ നിങ്ങൾക്ക് ആ അതെ അതെ നിങ്ങൾക്ക് വേണ്ട വസ്തുവിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞില്ലേ ഇന്നലെ അപ്പോൾ അത് വെച്ച് ഞാൻ രണ്ട് മൂന്ന് ലൊക്കേഷൻ നോക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര സെൻറ്റ് വസ്തുവാണ് വേണ്ടത് പതിനാറ് സെൻറ്റ് നിൽക്കണം അല്ലെ ഓക്കെ ഇപ്പം നമുക്ക് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഈ പതിനാറ് സെൻറ്റിൻറ്റൊരു വസ്തുവുണ്ട് മൂന്ന് സ്ഥലങ്ങൾ പറയുമ്പം ഒന്ന് ആറന്മുളയാണ് വരുന്നത് ഒന്ന് മേലുകരയാണ് വരുന്നത് ഒന്ന് കോഴഞ്ചേരിയാണ് വരുന്നത് ഇല്ലില്ല അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഈ മൂന്ന് വസ്തുവിനകത്ത് വരുന്നില്ല ഇല്ലില്ല കുടിവെള്ളത്തിന് ഉള്ള ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല കാരണം ഇവിടെ എല്ലാ വീടുകളിലും കിണറാണ് കിണറ്റിൽ നിന്ന് നല്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് വരുന്നത് അത് കൂടാണ്ട് വെള്ളത്തിന് പ്രശ്നം വരാൻ കാരണം പറയാനായിട്ട് നമുക്ക് അടുത്തുകൂടെ പമ്പാ നദിയാണൊഴുകുന്നത് ഒരിക്കലും നമുക്ക് അങ്ങനെ വെള്ളത്തിനൊര് പ്രശ്നം വരുന്ന സ്ഥലമല്ല പിന്നെ മലയോര പ്രദേശവും അല്ല അതെ അതെ ആ ഈ മൂന്ന് വസ്തുവിൽ രണ്ട് വസ്തുവിലാണെങ്കില് ഒരു നാല് സെൻറ്റിന് വീട്ടിലോട്ടുള്ള വഴി മാത്രമുണ്ട് കാറും കാറുണ്ട് ദാ എല്ലാം കയറി ലോറിയെല്ലാം കയറുന്ന രീതി നാല് സെൻറ്റ് ഒരു വഴി മാത്രമായിട്ടുണ്ട് അതിൻ്റെ പുറകിൽ പുറകിലാൾക്കാര് താമസിക്കുന്നതാണ് അപ്പോൾ അതിലാദ്യത്തെ ഒരു പ്ലോട്ടാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പതിനാറ് സെൻറ്റിൻ്റെ ഇട്ടിരിക്കുന്നത് ഒറ്റക്ക് ഉള്ള ഏരിയ ആണെങ്കിൽ നിങ്ങൾക്ക് മേലുകര വിട്ടിട്ട് ആറന്മുള നോക്കാം ആറന്മുളയാണെങ്കിൽ ഒറ്റക്ക് ഉള്ള ഏരിയ ഉണ്ട് അതെ അതെ ആറന്മുള എന്ന് പറയുമ്പോൾ ആറന്മുള ഏറ്റവും കൂടുതല് അടുത്ത് തന്നെ മൂന്നാലഞ്ച് സ്കൂളുകള് വരുന്നുണ്ട് പിന്നെ ആറന്മുളയിൽ നിന്ന് കോഴഞ്ചേരിക്കെപ്പഴും ബസ്സുള്ള സ്ഥലവാണ് ഒരു ആറ് കിലോമീറ്റർ സമത്തിംഗ് ഉള്ളൂ അപ്പോൾ നമുക്ക് മ സ്കൂൾ എന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാലക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ അടുത്തൊരു ഹോസ്പിറ്റല് വരുന്നുണ്ട് പെട്ടെന്ന് എന്തേലും അത്യാവശ്യമുണ്ടേൽ തന്നെ കോഴഞ്ചേരിയിൽ ആണേലും മൂന്ന് ഹോസ്പിറ്റലാണ് വരുന്നത് ഗവൺമെൻറ്റ് ജില്ല ഹോസ്പിറ്റല് നമ്മുടെ കോഴഞ്ചേരിയിൽ ആണ് ഉള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ആറന്മുളയിലെ വസ്തുവാണ് നോക്കുന്നു എന്നുണ്ടെങ്കില് സെൻറ്റിനൊരു ഒന്നേ മുക്കാല് വരും ഒന്നാമത്തെ കാര്യം ഈ പ്രളയ സമയത്ത് പോലും ഈ പറയുന്ന ഈ പതിനാറ് സെൻറ്റ് വസ്തു ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അവിടെ വെള്ളമൊന്നും കയറാത്ത സ്ഥലവാണ് അപ്പോൾ ആ വസ്തുവിന് സത്യം പറഞ്ഞാൽ രണ്ട് രൂപയാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ നിങ്ങള് വഴി ഇന്നലെ മൂന്നാല് ദിവസമായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്ത് കോൾ ചെയ്ത് ഇങ്ങനെ ഒരു സംസാരമായത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നേ മുക്കാലിനൊര് റേറ്റ് പറഞ്ഞത് അതിൽ കൂടുതല് നമുക്ക് കുറയാനേ പറ്റത്തില്ല ഈ വസ്തുവിൻ്റെ പുറകെ വേറെ ആൾക്കാര് വരുന്നുണ്ട് എല്ലാം അത്യാവശ്യം നല്ല പരിസരമാണ് ആ ആറന്മുള അമ്പലം കേട്ടിട്ടില്ലേ ആ അമ്പലം അറിയത്തില്ലേ പ്രശസ്തമായ ആറന്മുള വള്ളം കളി നടക്കുന്ന അമ്പലം അതിവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനകത്ത് തന്നെയാണ് പിന്നെ അപ്പം തന്നെ അറിയാമല്ലോ ഒര് അമ്പലവായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലവാണ് പല ആ വളരെ നല്ല അയൽവക്കകാരും എല്ലാം കൊണ്ടുള്ള സ്ഥലവാണ് ഒരിതിലങ്ങനെ പ്രശ്നം വരത്തൊന്നുമില്ല ആ പോര് നാളെ എപ്പഴാണ് നിങ്ങളുടെ സമയം ആ സമയത്ത് എന്നെ ഒന്ന് വിളിച്ചാൽ മതി ആ സമയത്ത് പോര് നമുക്ക് വസ്തു കാണാം ഓക്കെ നിങ്ങള് ഓ നിങ്ങൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അഗ്രിമെന്റ് എഴുതാവുന്നതാണ് അഗ്രിമെന്റ് എഴുതുന്ന രീതീയില് ഒരു അഡ്വാൻസ് ചെയ്യുന്ന രീതിയില് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് നിങ്ങളാദ്യം വന്ന് വസ്തുവൊന്ന് കാണ് വസ്തുവൊന്ന് കണ്ട് ഫാമിലിയായിട്ടുള്ള ആൾക്കാരൊക്കെ കാണുവല്ലോ അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് വസ്തു കണ്ട് ഒന്ന് ഇഷ്ടപ്പെട്ടാല് ബാക്കി കാര്യങ്ങള് നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കാവുന്നാണ്